ഓ എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കളർ പെൻസിലാണ് കളർ പെൻസിൽ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് അതിന് കളർ അടിക്കാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നല്ലൊരു പ്രോഡക്റ്റാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ഓൺലൈനിൽ എൻ്റെ മോന് വേണ്ടിട്ട് ഓർഡർ ചെയ്തതാണ് അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ കളർ പെൻസിൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമ്മൾ അത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ചിത്രം വരയ്ക്കുവോ അങ്ങനത്തെ കാര്യം ഒക്കെ ഉണ്ടെങ്കില് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മലയും കുന്നും പിന്നെ വീടും അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും വരക്കുന്നത് എങ്കില് അതിന് കളർ നൽകാൻ വേണ്ടിട്ടും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ കളർ പെൻസിൽ യൂസ് ചെയ്യുന്നത് പലതരം കളർ ഉണ്ട് ഇപ്പം ഓറഞ്ചുണ്ട് റെഡ് പിന്നെ പച്ച നീല കളർ നീല തന്നെ പല തരം ഇപ്പോൾ വയലറ്റ് നീല അങ്ങനത്തെ പല തരം നീല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് റോസ് കളറുണ്ട് അങ്ങനെ പല രീതിയിലുള്ള കളറും കാര്യങ്ങളൊക്കെ അതിനകത്തു നമുക്ക് കിട്ടും അപ്പോൾ നല്ല രീതിയിൽ ഉള്ള ഒരു ചിത്രമാക്കി മാറ്റാൻ വേണ്ടിട്ട് നമുക്ക് കളർ പെൻസിൽ വേണം എങ്കിൽ യൂസ് ചെയ്യാം